ഹലോ മേരിമാതാ ട്രാൻസ്പോർട്ടല്ലേ എനിക്ക് അതിരപ്പള്ളി വെട്ടം വെള്ളച്ചാട്ടം ഒന്ന് കാണാനായിട്ട് പോകാനായിട്ടാണ് അടുത്ത ശനിയാഴ്ച നിങ്ങളുടെ ആ സെവൻ സീറ്റർ ക്വാളിസിൻറ്റെയും ചെറിയ കാറിൻറ്റെയും റേയ്റ്റൊന്ന് പറയാമോ കിലോമീറ്ററിൻറ്റെ എങ്ങനെയാണ് പോവാനുള്ളത് അതിൽ ഡ്രൈവറുടെ റേയ്റ്റ് എല്ലാം കൂടെ കൂട്ടി പറയണം നാലു പേർക്ക് ഇരിക്കാവുന്ന ഒരു ചെറിയ ക്യാബിൻറ്റേയും ആറുപേർക്ക് ഇരിക്കാവുന്ന വലിയ ക്യാബിൻറ്റേയും കൂലിയാണ് എനിക്കറിയേണ്ടത്